ഹലോ ആ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ എന്തായി എവിടം വരെയായി അതിന് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക് വന്നതല്ലല്ലോ ഒരു പോർഷൻ തീർക്കാനുള്ള സാധനങ്ങൾ അവടെയില്ലേ നിങ്ങൾ ജോലി തീർക്കാതെ ഇങ്ങോട്ട് പരാതി പറഞ്ഞാൽ എങ്ങനെ ശരിയാകും അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് തന്നില്ലല്ലോ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഞാനെന്താണ് വർക് ക്ഷീറ്റ് കണ്ട് പിടിക്കയോ ലിസ്റ്റ് തന്നാലല്ലേ കണ്ടുപിടിക്കാൻ പറ്റത്തൊള്ളൂ എനിക്കാരും ഇൻഫോം ചെയ്തിട്ടില്ല നിങ്ങൾക്കൊരു ടീം ലീഡർ തന്നിട്ടില്ലേ ടീമ് ലീഡറ് ഇതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ ടീം ലീഡറോട് ചോദിക്കാത്തതെന്താണ് നിങ്ങൾക്ക് തന്ന് അല്ലെങ്കിൽ അയാൾ പറ അയാൾ പറഞ്ഞില്ലാന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് എന്നെയൊന്ന് അറിയിക്കാമായിരുന്നല്ലോ അപ്പോൾ സാധനങ്ങൾ ഇന്ന് ഇറക്കാമായിരുന്നല്ലോ അടുത്തമാസം എല്ലാം തീർത്തുകൊടുക്കാമെന്ന് ഏറ്റുപോയി ഞങ്ങൾ സൂപ്പർവൈസർ നിങ്ങൾ പണി പണി നേരാവണ്ണം ചെയ്യാതെ കുറ്റം മാത്രം എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ തീർത്തുകൊടുക്കുന്നവർ ഉള്ള സാധനംകൊണ്ട് പറ്റുന്നത് കംപ്ലീറ്റ് ചെയ്യുക ഇപ്പം ഞങ്ങൾ ഉള്ള സാധനങ്ങൾ വെച്ച് നിങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാട്ടോ പകുതി പോർഷനെ തീർത്തിട്ടുള്ളു അതിൽ കാൽ ഭാഗത്തിനുള്ള സാധനങ്ങൾ ഇവിടെയില്ലേ ആകുന്ന സമയത്ത് തി തീർക്കാലോ നിങ്ങൾ ഇപ്പോൾ ഉള്ള സാധനം വെച്ച് വർക്ക് തീർത്ത് വെച്ചാൽ ബാക്കി സാധനം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി നിങ്ങളീ ജോലി ചെയ്യാതിരിക്കുന്നതിന്റെ ഉദ്ധേശം എന്താ പത്ത് ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊടുക്കാമെന്ന് നമ്മൾ ഏറ്റതല്ലേ കാണണ്ട കാണണ്ട ആവശ്യം ഒന്നും ഇല്ലെന്നാ വർക്ക്സ് അവിടെന്ന് അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ട് ആര് പണിയെടുക്കുന്നുണ്ട് പണിയെടുക്കുന്നില്ലാന്നുള്ളത് നിങ്ങളുടെ സാലറി ഇങ്ങനെപോയാൽ കട്ട് ചെയ്യേണ്ടിവരും നിങ്ങളുടെ അവിടെ നടക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ സാലറി നിന്ന് കട്ട് ചെയ്യാം എന്തായി ഇനിയിപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളു അടുത്ത മാസത്തിന്റെ എൻഡിങ്ങിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞ് പോയി അപ്പോൾ അതിനുള്ളിൽ കാര്യങ്ങൾ അപ്പോൾ സാർ എനിക്കി അപ്പോൾ സാറെനിക്കി ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഇങ്ങോട്ട് സാറ്ത്തന്നെ അയക്ക് ബാക്കിയുള്ളവരെ നോക്കുന്നില്ല അവർ അയക്കുന്നോ ഇല്ലയോന്ന് നോക്കണ്ട സാറെന്തു ചെയ്യുവാണ് എല്ലാ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്തൊക്കെയാണ് എത്തിക്കേണ്ടത് ഏതൊക്കെ ക്വാളിറ്റിയിൽ സാധനങ്ങൾ വേണം കമ്പിയെവിടെന്ന് വേണം എത്ര ഇഷ്ടിക വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യം എനിക്ക് ഇന്ന് രാ രാ രാത്രി അല്ലെങ്കിൽ ഉച്ചക്കുള്ളിൽ എനിക്ക് അയച്ച് തന്നുകഴിഞ്ഞാൽ ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം ഒരാഴ്ച്ചക്കുള്ളിൽ നിങ്ങൾക്ക് സാധനം അവിടെയെത്തും ഒരു മാസത്തിനുള്ളിൽ നമ്മുക്കിത് കംപ്ലീറ്റ് ചെയ്ത് പറ്റത്തൊള്ളൂ കാലാവസ്ഥയുടെ കാര്യങ്ങൾ നമുക്ക് അവരോട് പെർമിഷൻ ചോദിക്കാം ഇതിന്റെ നോക്ക് വർക്ക് തന്നവരോട് പർമിഷൻ ചോദിക്കാൻ പറ്റില്ലേ നിങ്ങൾ ജോലി ചെയ്യാതിരുന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ കാര്യം കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞ് നമുക്കൊരു എസ്ക്യൂസായിട്ടവരോട് ചോദിക്കാം അതൊന്നും പ്രശ്നം ഇല്ല കഴിവതും നിങ്ങൾക്ക് വരുന്ന സാധനങ്ങൾ വെച്ച് കാലാവസ്ഥ നല്ലതായിരിക്കണം എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വെയിലും മഴയൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ കഴിവതും പണികൾ തീർത്ത് വെക്കാൻ നോക്കുക കേട്ടോ പിന്നേ ഈ കൺസ്ട്രക്ഷൻ സൈഡിലെ സാധനങ്ങൾ കുറച്ച് പേര് മാറ്റിയൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെയൊന്ന് നോക്കിയേക്കണം അത് കറക്റ്റായിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം ലിസ്റ്റും കാര്യങ്ങളും ഇടാൻ ആവശ്യമില്ലാത്ത ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങൾ ലിസ്റ്റ് എഴുതിപ്പിക്കരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ ചോദിക്കാവു കൂടുതലൊന്നും ചെയ്യരുത് കേട്ടോ